ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻമ്പത് നവംബർ പതിനേഴാണ് യുണസ്കോ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് ലോക മാതൃഭാഷ ദിനമായി പ്രഖ്യാപിച്ചു ആധുനിക ലോകത്ത് മലയാളഭാഷ നേരിടുന്ന വളരെയധികം വെല്ലുവിളികളുണ്ട് ഈ മാതൃഭാഷ ദിനമായിട്ട് യുണസ്കോ ഇത് ഏപ്രിൽ ഇരുപത്തൊൻമ്പതിന് പ്രഖ്യാപിച്ചു നമ്മളെ നാമാക്കി മാറ്റിയ ഭാഷയാണ് മലയാളി മലയാളം എന്ന ഭാഷ അമ്മമാതാവിൻ്റെ ആദ്യ അക്ഷരമാണ് മലയാളം എന്നാൽ ഇന്നത്തെ കുട്ടികൾ നന്നായി ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ട് വളരെ ഏത്ര ത്യാഗം സഹിക്കാൻ പറ്റുമോ അത്രയും ത്യാഗം സഹിച്ച് അവരുടെ മാതാപിതാക്കൾ ഇംഗ്ലീഷ് ആംഗലേയ ഭാഷ പഠിപ്പിക്കാൻ അവരെ വിടുന്നു മക്കൾക്ക് മലയാളം അറിയില്ല എഴുതാനും വായിക്കാനും മലയാളം അറിയില്ല എന്ന് പറയുന്നത് വളര അധികം അഭിമാനം ഉൾക്കൊള്ളുന്നതും എന്നാൽ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയുന്ന അവർക്കൊരു അപമാനമായി തീരുകയാണ് മലയാളം എന്ന ഭാഷയെ അതി മരിപ്പിച്ച് കൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ തലമുറ മലയാള ഭാഷ പറയുന്നത് കുറച്ചിലാണെന്ന് കരുതുന്ന മാതാപിതാക്കളും ഇന്ന് ഉണ്ട് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് വരുന്ന ഒരു ഒരു കവി പറഞ്ഞിട്ടുണ്ട് എന്നാൽ മറ്റുള്ള ഭാഷകളെ പോലെ നമ്മളുടെ ഭാഷയെ കാണാതെ നമ്മളുടെ ഭാഷയെ നമ്മൾ നമ്മളുടെ മാതാവിൻ്റെ സ്ഥാനം കൊടുത്ത് നമ്മളെഴുതാനും വായിക്കുവാനും പഠിച്ചതേ പഠിച്ചേ മതിയാവൂ ഈ ലോകത്ത് മലയാളഭാഷ ഈ ഇംഗ്ലീഷ് ഭാഷയൊക്കെയാണ് ഇപ്പോൾ അത് വളരെയധികം മറ്റുള്ള വ്യക്തികളും കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ പ്രാധാന്യം നൽകുന്ന മലയാളം ഭാഷക്ക് ഒരു വിലയോ മാഹാത്മ്യമോ നൽകുന്നില്ല മലയാള ഭാഷ എന്ന് നമ്മുടെ ശ്രേഷ്ഠ ഭാഷയാണ് ഈ മലയാളമാണ് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആൾക്കാർക്ക് മടി മടി ചെലുത്തുന്നത് ഇപ്പോൾ മലയാളം ഭാഷയാണ് എന്നാൽ ഇംഗ്ലീഷ് ഭാഷയും മറ്റ് ഭാഷകളും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നത് മലയാളം ഭാഷയെ അത്രയും അധികം ആർ ആരും ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല അവരുടെ കുട്ടികളുടെ പഠന കാര്യത്തിലും ആയിക്കോട്ടെ ഏത് വിഷയത്തിലും ആയിക്കോട്ടെ മലയാളത്തിൽ എഴുതുന്നതും വായിക്കുന്നതും ഒരു കുറച്ചിലായിട്ടാണ് പലരും പലരും കണ്ടുവരുന്നത് നമ്മളുടെ മാതൃഭാഷയെ മറ്റുള്ള ഭാഷകളിൽനിന്നും വ്യത്യസ്തമാക്കി നമ്മളുടെ ഉള്ളു തുറന്ന് അമ്മയോട് സംസാരിക്കുന്നത് പോലെയാണ് നമ്മളുടെ മാതൃഭാഷ എന്ന് കേട്ടിട്ടില്ലേ നമ്മളുടെ മാതൃഭാഷയെ നമ്മൾ നമ്മൾ എങ്ങനെയാണോ നമ്മൾ നമ്മളുടെ അമ്മമാർ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളുടെ മാതൃഭാഷയെ സ്നേഹിക്കുന്നത് ബാക്കി എല്ലാ ഭാഷകളും അതിന് താഴെയയായിട്ടാണ് വരുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് ഭാഷയും മറ്റ് ഭാഷയെയും മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ ജീവിത നിലവാരത്തിലും അവരുടെ ജീവിത ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മളുടെ സ്വന്തം ഭാഷയെ മാറ്റി നിർത്തി ആംഗലേയ ഭാഷയ്ക്കും മറ്റു ഭാഷയ്ക്കും പ്രാധാന്യം നൽകി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ അവസ്ഥ കുട്ടികളുടെ ജീവിതത്തിൽ മലയാളം തന്നെ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു സ്കൂളിൽ സംസാരിക്കുന്നതും തമ്മിൽ തമ്മിൽ കൂട്ടുകാരുകൾ സംസാരിക്കുന്നത് വരെ മലയാള ഭാഷകളിൽ തന്നെയാണ്